കുടുംബത്തിലെ സ്ത്രീകള് നമുക്ക് മത്സ്യ ബന്ധനത്തിന് എങ്ങനെയാണ് കൂടുതലായിട്ട് ഹെൽപ്പെന്ന് ചോദിച്ച് കഴിഞ്ഞാല് ഇപ്പോൾ സാധാരണ പുരുഷന്മാരാണ് ഈ മത്സ്യ ബന്ധനത്തിന് പൊതുവെ പോവാറ് അതായത് കടലിൽ പോകുന്ന ആൾക്കാര് അവര് തന്നെ ആയിരിക്കും കൂടുതല് കൂടുതല് അവര് തന്നെയാണ് കടലിൽ പോകുന്നതും കാരണം കടലിൽ പോവുന്നത് കുറച്ചും കൂടെ സാഹസികമായിട്ടുള്ള ഒരു ഇതായത് കൊണ്ട് അവർക്ക് പൊതുവെ സ്ത്രീകള് പോവാറ് കാരണം കടലില് എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് സംഭവിക്കുകാന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല പെട്ടന്ന് ചിലപ്പോൾ കടല് പ്രക്ഷുബ്ധമാവാൻ പറ്റും അപ്പം ആ സമയത്ത് വഞ്ചി ചിലപ്പോൾ വഞ്ചി മറിയാം അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകും ഇടിവാള് മിന്നും മഴയുണ്ടാകാം ഇപ്പം നമുക്ക് അത്രയും ഇത്രേ അതായത് അങ്ങനെയുള്ള പ്രഷറോ അല്ലങ്കിൽ അത്രയും ഇതൊന്നും എല്ലാവർക്കും സ്ത്രീകൾക്കങ്ങനെ താങ്ങാനോ അല്ലങ്കിൽ അതിൽ പെട്ടന്ന് പ്രതിരോധിക്കാനോ കാര്യങ്ങൾക്കോ പറ്റില്ല അപ്പോൾ അവർക്ക് സെൻസിറ്റീവായത് കാരണം കൊണ്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസുണ്ട് പിന്നെ നോക്കണെന്ന് പറയുമ്പോ അവർക്ക് അല്ലാതെ തന്നെ അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ അവര് പിടിച്ചിട്ട് അതായത് പിടിച്ച് വരുന്ന മത്സ്യങ്ങള് വിറ്റ് കൊടുക്കുക അവര് മറ്റേ അവര് വല നെയ്ത് കൊടുക്കുക പിന്നെ അവർക്ക് നല്ല ഈ ഇപ്പോൾ മത്സ്യമെന്ന് പറയുമ്പോൾ പച്ച മീൻ മാത്രല്ല ഉണക്കമീനൊണ്ട് അപ്പോൾ അവര് കൊണ്ട് വന്ന മത്സ്യം വൃത്തിയായി ഒണക്കി അതിന് വേണ്ട പരിരക്ഷയും കാര്യങ്ങളും നടത്തി നല്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന് ഈ നമ്മുടെ സ്ത്രീകൾക്ക് പറ്റും